ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സന്ദർശകർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കേരളത്തില് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കൂടുതൽ ആയിട്ടും ഗവേഷണം അങ്ങനത്തെ കാര്യങ്ങലൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ നല്ല രീതിയില് നമുക്ക് അതിൻ്റെ വിഭവങ്ങള് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കണം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുന്നുകൾ കാര്യങ്ങളൊക്കെ ആണ് കൂടുതലായിട്ടും ആൾക്കാര് കാണാനും അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ അവിടേക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വയനാട്ന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അപ്പോൾ വയനാട്ടിലേക്കൊക്കെ കൂടുതലായിട്ട് നമുക്ക് നമുക്ക് നല്ല രീതിയില് എന്താ പറയുക ഇപ്പം മൂന്നും നാലും അഞ്ചുദിവസത്തേക്കൊക്കെ വെച്ചിട്ട് കാണാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കുവാണെങ്കിൽ അവിടെ ഒക്കെ നല്ല രീതിയിൽ സന്ദർശകര് വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് നല്ല രീതിയില് അത് കാ കാ എന്താ പറയുക ഇപ്പോൾ കാണിച്ചുകൊടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയും ചെയ്യാം പിന്നെ അല്ലാണ്ടും ചെയ്യാവുന്നതാണ് ഇപ്പോൾ മൂന്നാറിലോക്കെ ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും